ഹലോ സാർ പാരഗൺ റെസ്റ്റോറൻറ് അല്ലേ ഫുഡിന് ആവിശ്യമായിട്ട് നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടിയ നമ്പറായിരുന്നു അങ്ങനെ നമ്മൾ കോണ്ടാക്ട് ചെയ്തതതാണ് നമുക്ക് ഫുഡ് ആവിശ്യണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഫുഡിൻ്റെ നിങ്ങളെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുവഴി നമ്മള് ഇങ്ങനെ നോക്കിയായിരുന്നു അപ്പോൾ കാണാൻ കഴിഞ്ഞത് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് പേയ്മെൻറ് നോക്കുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ നമുക്ക് ഒരു വിശ്വാസമില്ല എങ്ങനെ എന്നു വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് വഴിയും ഒരുപാട് ഉഡായിപ്പുകൾ നടക്കുന്ന കാലമാണ് അപ്പോൾ ഞമ്മള് എന്ത് വിശ്വാസത്തിലാണ് പേയ്മെൻറ്റും ചെയ്തത് ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടത് ഈ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടേൽ നമുക്ക് ഒരു വിശ്വാസമായിരുന്നു പേയ്മെൻറ്റ് ഈ ഫുഡ് എത്തിയതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്താൽ പോരേ എന്നുള്ളത് പക്ഷേ നിങ്ങളേൽ ക്യാഷ് ഓൺ ഡെലിവറി കാണാത്തൊരു ഒറ്റ കാരണത്തിൽ നമുക്ക് ഈ ഫുഡ് ക്യാൻസല് ചെയ്യേണ്ടി വന്നു നിങ്ങള് തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു അഡ്വാൻറ്റേജ് കുറഞ്ഞത് അല്ലെ ഈ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തത് ഒരുപാട് പേരിങ്ങിനെ വിശ്വാസക്കുറവിൽ ഇങ്ങനെ ക്യാൻസൽ അടിച്ചു പോയിട്ടുണ്ടാകും ഫുഡ് ഓർഡർ ചെയുന്ന ഈ സംഭവം അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു നഷ്ടം വരുന്ന സംഭവം തന്നെയാണ് ഇത് അപ്പോൾ നിങ്ങക്ക് ക്യാഷ് ഓൺ ഡെലിവറി വെച്ചിട്ടുടെങ്കില് നമുക്ക് തന്നെ കുറച്ചുകൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അവിടുത്തെ ഫുഡും സർവീസും ഒക്കെ അടിപൊളിയാണ് എന്നാണ് ഓൺലൈനിൽ ഒക്കെ കാണാൻ കഴിഞ്ഞത് അങ്ങനെ ആണ് നമ്മള് കോണ്ടാടാക്ട് ചെയ്തത് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തത് കാരണത്താൽ നമുക്ക് ഈ ഫുഡ് ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നത് ഭയങ്കര സങ്കടകരമാണ് അപ്പോൾ അത് നിങ്ങൾ എന്തേലും ഒക്കെ ഒരു മാറ്റം വരുത്തി മാറ്റം വരുത്തേണ്ടതാണ്